ഇപ്പം സാധാരണ ഞാൻ എടുക്കുന്ന ക്യാമറകളിലൊക്കെ ആണേലും ഞാനെടുക്കുന്ന ചിത്രങ്ങൾ കൂടുതലും എൻ്റെ സുഹൃത്തുക്കൾടെ തന്നെയാണ് പിന്നെ കൂടുതൽ വ്യുവും സീനറിയും ഒക്കെ കൂടുതലായിട്ടും നമ്മൾ എടുക്കാൻ ശ്രമിക്കും കാരണം എന്താ പറയാ അത്യാവശ്യം ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരൊത്തു പോയും ഫാമിലി ഒത്തൊക്കെ പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാമറടെയുണ്ടെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കും പിന്നെ എന്താ പറയാ പൂക്കളൊക്കെ ഫോട്ടോ എടുക്കുക നല്ല വ്യൂവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ എന്താ പറയാ ക്യാമറ കൊണ്ട് ഫോട്ടോസെടുക്കാൻ കൂടുതലും കൊണ്ടുപോവാറ് പിന്നേ എന്താ പറയാ പുതിയ വാഹനങ്ങൾ ഏതേലും എന്താ പറയാ അട്രാക്ടീവ് ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിലിരുന്നും ഒക്കെ ഫോട്ടോയെടുക്കാൻ ഒക്കെയാണ് കൂടുതലും നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ താല്പര്യം പിന്നേ ഞാൻ എന്താ പറയാ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പൊതുവേ നമ്മുടെ ഇവിടെ കൂടുതലും ഫോറസ്റ്റ് ഏരിയൊക്കെയാണ് അപ്പോൾ അവിടെയൊക്കെ പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്ക ഫോറസ്റ്റിലും ഇപ്പോൾ ഇൻറർലോക്കിട്ട വഴിയൊക്കെയാണ് അപ്പോൾ അവിടുന്നൊക്കെ ഫോട്ടോയെടുക്കാനൊക്കെ എന്താ പറയാ നല്ല ഭംഗിയാണ് അപ്പോൾ അവിടുത്തെ ഫോട്ടോയൊക്കെ എടുത്തുകഴിഞ്ഞാൽ അതൊന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാര്യത്തിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഫോട്ടോയെടുക്കാനൊക്കെ പോകുന്നത് അപ്പം ഞാൻ സാധാരണ ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും എടുക്കുന്നത് എൻ്റെ ഫോട്ടോയും എൻ്റെ കൂട്ടുകാർടെ ഫോട്ടോയുമൊക്കെയാണ് സാധാരണ എടുക്കാറ് അപ്പോൾ അതുതന്നെയാണ് ഞാൻ സാധാരണ ചെയ്തുവരുന്നത്